നിരവധിയാളുകളുണ്ട് എല്ലാ ദിവസവും തന്നെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ആയിട്ട് കുടുംബ പ്രശ്നമാകാം ഇപ്പം വിദ്യാർത്ഥികളാണേൽ തന്നെ കോളേജുകളിലും സ്കൂളുകളിലും നടക്കുന്ന പ്രശ്നങ്ങളാകാം ഇങ്ങനെ ഉള്ള നിരവധി പ്രശ്നങ്ങളാകാം ഇപ്പോൾ പഠനപരമായ രീതിയിൽ തന്നെന്ന് പറഞ്ഞാൽ സ്ട്രെസ്സ് സ്ട്രെസ്സ് ഈ സ്ട്രെസ്സ് സ്ട്രെസ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് മാനസികമായ ബുദ്ധിമുട്ടുകളെന്താണ് ചെയ്യേണ്ടതെന്നും ഒത്തിരി വർക്ക് ലോഡും എന്ന് വേണ്ട ഒത്തിരി അസൈൻമെൻറ്റും പഠിക്കാനും കുറെ വർക്കുകൾ കംപ്ലീറ്റാക്കാനും പിന്നെ ഈ കുറച്ച് സമയം കാണുകയുള്ളായിരിക്കും അത്കാരണം വിദ്യാർത്ഥികൾക്ക് ഈയൊരു ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു ഇതവർക്ക് മെന്റലി അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായി അത് പഠിക്കാൻ പറ്റാതെ ടെൻഷനടിച്ച് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കാതെ വരും ആ അതില് അങ്ങനെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന വിദ്യാർത്ഥികളെ സഹായിക്കാൻ എൻ്റെ രീതിയിൽ അവർക്ക് നല്ലെയൊരു മോട്ടിവേഷനും അല്ല അവരുടെ പ്രശ്നങ്ങള് പറയാനായൊരു കൗൺസിലർ സ്കൂളിലോ കോളേജ്കളിലും അടുത്തായൊരു സാറുമാരോ ടീച്ചർമാരുടെ അടുത്ത് വിടുകയോ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും ആ ഒരു കൃത്യം അവർക്ക് അവർക്കെന്താണ് ബുദ്ധിമുട്ട് അവർ കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ കുറവുകൾ അനുസരിച്ച് ഉള്ള അവരുടെ കുറവുകൾക്കുള്ള അനുസരിച്ചുള്ള അറിവവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ എന്താണവരുടെ കുറവെന്നും അവർക്ക് എന്തൊക്കെ ചെയ്ത് അവരുടെയാ കുറവുകളെ മാറ്റാൻ സാധിക്കുമെന്നും എന്നെക്കൊണ്ട് സാധിക്കും വേറെ നിരവധി പ്രശ്നം എന്ന് പറഞ്ഞാൽ കുടുംബപ്രശ്നം കുടുംബപ്രശ്നം ഒത്തിരിയെനിക്ക് സാധിക്കില്ല എന്നാലും നിരവധി വീട്ടിലെന്തേലുമൊക്കെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന വീട്ടിലിപ്പം അമ്മമാരാണ് ഉദാഹരണത്തിന് നിരവധിയായ ജോലികള് മടുക്കും ക്ഷീണവും കാണും നിരവധി ദേഹാശയ ബുദ്ധിമുട്ടുകൾ കാണും അതൊക്കെ നമ്മൾ അവരെ സഹായിക്കാം അമ്മമാരോടെ അടുക്കളയിൽ പോയി സഹായിക്കുകയും അവരെ അവരോടൊപ്പം പപ്പമാരാണേലും പറമ്പിൽ പണിയാൻ പോകും അവരുടെ ബിസിനസ് റിലേറ്റഡ് കടയിൽ നിൽപ്പ് കടയിൽ കടകള് കാണും അങ്ങനെ അവര് ഭയങ്കര തിരക്കുകൾ ആയിരിക്കും അവരുടെ ജീവിതം നമ്മള് നമുക്ക് കഴിയാവുന്ന രീതിയിൽ അവരെ സഹായിക്കാം ഇടയ്ക്കിപ്പം അപ്പന്മാരണേൽ തിരക്കുള്ള സമയത്ത് കടയിൽ പോയി നിൽക്കുകയും ഇപ്പം പറമ്പിലാണേൽ തന്നെ അവരുടെ അവർക്ക് പണിയാൻ പോകുകയും അങ്ങനൊക്കെ നിരവധിയായി സഹായിക്കാൻ പറ്റും ഓരോപ്രശ്നങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കാൻ പറ്റും ഇപ്പോൾ കൂട്ടുകാരാണേലും ഒറ്റയ്ക്ക് ഇരിക്കുകയും അവർക്ക് അവരവരുടെ വിഷമങ്ങൾ പറയാൻ സാധിക്കാതെ അവര് മാനസികമായ രീതിയിൽ തളർന്നിരിക്കുകയാണെങ്കിൽ അവരുടെ അടുത്ത് ചെന്ന് അവർക്കെന്താ പ്രശ്നമെന്ന് അറിയുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് എന്തേലുവൊക്കെയൊരു ഉത്തരം നൽകി അവ അവരെ നമുക്കൊരു നമുക്ക് പ്രശ്നങ്ങൾ മൊത്തം കളയാൻ സാധിക്കുമെന്ന് ഉറപ്പില്ല എന്നാലും അവർക്ക് ചെറുതായ രീതിയിലൊരു നമ്മുടേതായ രീതിയിലൊരു മോട്ടിവേഷൻ കൊടുക്കാൻ നമുക്ക് സാധിക്കും വേറേ പ്രശ്നങ്ങള് ഇപ്പം പൈസ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കാണും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെന്ന് പറയുമ്പോൾ നമ്മൾടേതായ രീതി കഴിയുന്നത് ഇപ്പോൾ ഇപ്പോഴൊക്കെ ഒരുദാഹരണമായി ഏതെങ്കിലും വീടിൻ്റെ അടുത്തുള്ളൊരു പുള്ളി വീടോ ഫുഡ് കഴിക്കാൻ മാർഗ്ഗമില്ലാതെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കാം ആള്കളെയെല്ലാം കൂട്ടി കുറച്ച് പൈസയൊക്കെ ശേഖരിച്ച് അവർക്കാവശ്യമായ രീതിയിൽ അവരെ സഹായിക്കാൻ സാധിക്കും അതിനൊട്ടനവധി നിരവധി നിരവധി പ്രശ്നങ്ങൾ ഉണ്ട് അതെല്ലാം എല്ലാവൊന്നും പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിലും ഒട്ടുമിക്ക പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്ന്